ഒരു മതപരമായ ആഘോഷമോ എന്ത് ആഘോഷമായാലും നമ്മളാഘോഷിക്കുന്നത് കുടുംബം മൊത്തമായിട്ടാണ് ആഘോഷിക്കുന്നത് അത് ഇപ്പോള് ക്രിസ്മസായാലും ഈസ്റ്ററായാലും എല്ലാം നമ്മുടെ മതത്തിൻ്റെ ഇതിൽപെടുന്ന കാര്യങ്ങളാണ് മതപരമായ ആഘോഷത്തിൽ പെടുന്ന കാര്യങ്ങളാണ് ക്രിസ്മസ് തന്നെ എടുക്കുകയാണെങ്കിൽ അത് ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ അതിൻ്റെ എത്രനാള് കുറേനാള് മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങും നമ്മള് ലൈറ്റിടും സ്റ്റാറിടും വീട് ഫുള് അലങ്കരിക്കും വൃത്തിയാക്കും ഫുള്ള് ലൈറ്റിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും പുൽക്കൂടുണ്ടാക്കും അതില് ഈ ഉണ്ണിയേശുവെ വയ്ക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവിടത്തെ കുടുംബനാഥൻ തൊട്ട് കുട്ടികൾക്ക് വരെ എല്ലാവർക്കും അവിടെ ഓരോ ഡ്യൂട്ടീസുണ്ട് ചെയ്യാൻ പിള്ളാർക്കാണെങ്കില് അതൊരുക്കുന്നതിലുള്ള സന്തോഷവും എല്ലാം കാണും അങ്ങനെ ഫുള്ള് നല്ല രസമായിരിക്കും വീടലങ്കരിക്കുന്നതും ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞ് രാത്രി സ്വന്തം വീട് കാണുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് പിന്നെ പള്ളിയില് വന്നു കഴിഞ്ഞാലും പള്ളിയിൽ എല്ലാ നമ്മൾ പള്ളിയിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് അതിന് രണ്ടുദിവസം മുമ്പ് നമ്മള് കരോളിന് പോകും കരോളിന് പോകുമ്പോള് ഒരു മതത്തിലെ മാത്രം ആൾക്കാരല്ല കുറേ മതത്തിലെ ആൾക്കാര് എല്ലാ വേറെ വേറെ മതത്തിലെ ആൾക്കാര് എല്ലാംകൂടെ ചേർന്ന് നമ്മൾ കരോളിന് പോകും അതിന് കിട്ടുന്ന പൈസ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടെടുത്ത് നമ്മളെ കഴിക്കാനോ ഇല്ലെങ്കില് നമ്മൾ ഈ കളിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയോ അങ്ങനെ എല്ലാം ചെയ്യും വളരെ അടിപൊളി ആയിട്ട്തന്നെ ആണ് എല്ലാം ആഘോഷിക്കുന്നത് അതുപോലെതന്നെ മറ്റ് മതസ്ഥര് നമ്മളോട് അങ്ങനെതന്നാണ് ചെയ്യുന്നത് അവരെ എല്ലാ ആഘോഷങ്ങളിലും നമ്മളെ ഉൾപ്പെടുത്തുകയും നമ്മള് ക്രിസ്മസിന് നമ്മള് വീട്ടില് വയ്ക്കുന്ന എന്തേലും വിശിഷ്ട നമ്മള് ബിരിയാണി വയ്ക്കുകയോ എന്തേലും വച്ചുകഴിഞ്ഞാല് നമ്മൾ അപ്പുറത്തെ വീട്ടിലും കൊടുക്കും അപ്പുറത്തെ ഏത് മതക്കാരെന്ന് നോക്കുന്നതല്ല നമ്മൾ അവർക്ക് കൊടുക്കും നമ്മുടെ സ്നേഹംകൊണ്ട് നമ്മളതൊക്കെ കൊടുക്കും അങ്ങനെ പള്ളിയില് വന്ന് കഴിഞ്ഞ് രാത്രിയിൽ ഇവിടെ രാത്രി കുർബാന അത് രാത്രി വരുന്നതൊക്കെ ഒരു രസമാണ് പിള്ളേരെല്ലാം പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സ് മേടിക്കും ആണുങ്ങളും പെണുങ്ങളുമൊക്കെ ആണെങ്കില് ഒരേപോലത്തെ ഡ്രസ്സ് മേടിക്കാന് ശ്രദ്ധിക്കും എന്നിട്ട് അവരുടെ ഒരു ഗ്രൂപ്പെല്ലാം ഒരുമിച്ച് പരുപാടിയേയ്യും രാത്രിയില് ഇവിടെ കുര്ബാന കഴിഞ്ഞിട്ടുടനെ പരുപാടിയേയ്യും അങ്ങനെ ഫുള്ള് രസമാണ് നമ്മൾ പള്ളിയിൽ വന്ന് പള്ളിയിൽ പുൽക്കൂടുണ്ടാക്കും അതിന് കുറേ ഗ്രൂപ്പ് പലപല വീട്ടിലെ പിള്ളേരെല്ലാംകൂടെ ചേർന്നിരുന്ന് പുൽക്കൂടുണ്ടാക്കും പള്ളി ഡെക്കറേറ്റെയ്യും പള്ളിയിലെ പ്രോഗ്രാംസ് ചാർട്ടെയ്യും അതിനുവേണ്ട കാര്യങ്ങള് ചെയ്യും ചർച്ചെയ്യും അതൊക്കെത്തന്നെ രസാണ് അങ്ങനെ ഫുള്ള് പരിപാടി പരിപാടി പരിപാടി വിജയിക്കോ അത് നമ്മള് ചെയ്യുന്ന പ്രീപ്പറേഷൻ്റെ അളവനുസരിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ്യേയ്യും നമ്മള് പരിപാടി എല്ലാം പിന്നേ നമ്മള് ഫുഡ് അതിനുവേണ്ട തലേദിവസം പോയി ഇറച്ചിയും നോയിമ്പായിരിക്കും അതിനുവേണ്ടി ഇറച്ചി മേടിക്കും മുട്ട മേടിക്കും മീൻ മേടിക്കും അങ്ങനെ ബീഫ് മേടിക്കും എല്ലാം മേടിച്ച് നമ്മൾ തലേന്ന് തൊട്ടേ പ്രീപറേഷൻ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് രസമാക്കി നമ്മൾ പടക്കം പൊട്ടിക്കും രാത്രിയില് നല്ല ഒത്തിരി പടക്കമൊക്കെ മേടിച്ച് പൊട്ടിച്ച് ഫുള്ള് ഫാമിലിയോടൊത്തും കൂട്ടുകാരോടൊത്തും എല്ലാം ഭയങ്കര അടിച്ച്പൊളിച്ച് നമ്മൾ ഏത് ആഘോഷമാണെങ്കിലും അത് എൻജോയേയ്യും അത് കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു മിസ്സെയ്യുന്നെ എല്ലാ ആഘോഷവും അങ്ങനെ എല്ലാ ആഘോഷങ്ങളും അടിപൊളിയാണ് നമ്മൾ എല്ലാം വളരെ പ്രീപയറേയ്ത് അടിപൊളിയായിട്ടെയ്യാറുണ്ട്